ആ അതൊക്കെ ആണ്

ആ ഓക്കെ ആ ഓക്കെ ആ മാഡത്തിന് ഇപ്പം ടി വി ആണോ വേണ്ടത് ടി വി അല്ല ഇവിടെ ടി വി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അതുപോലെ എ സി എല്ലാ കാര്യങ്ങളും ഉണ്ട് മാഡത്തിന് ഇപ്പം എന്താണ് വേണ്ടത് ടി വിയിലോ ടി വിയിൽ ഇപ്പം സാംസങ്ങിൻ്റെ ഉണ്ട് എൽ ജി ഉണ്ട് അതുപോലെ എം ഐ റെഡ്മിയുടെ ഉണ്ട് എത്ര ഇഞ്ച് ടി വി ആണ് ഉദ്ദേശിക്കുന്നത് മാഡം അത് നമുക്ക് ഇപ്പോൾ ഓരോ ഇഞ്ചിന് അനുസരിച്ച് ഉണ്ട് മാഡം മുപ്പത്തിരണ്ട് ഇഞ്ച് അറുപത്തിനാല് ഇഞ്ച് നാല്പത്തിയൊൻപത് ഇഞ്ച് ഇഞ്ചിന് അനുസരിച്ചാണ് പിന്നെ ഫ്ലാറ്റ് ഏത് കമ്പനി അനുസരിച്ചിട്ട് റേറ്റും മാറും ആ ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ഇപ്പോൾ ആദ്യം എന്തൊക്കെയാണെന്ന് പറയുമ്പം ഇരുപത്തിനാലായിരത്തിൻ്റെ ഉണ്ട് അതുപോലെ എന്നാൽ മുപ്പത്തേഴായിരം അറുപത് അറുപത്തഞ്ച് അതിന്റെ അകത്ത് ഫീച്ചേർസ് കൂടി കൊണ്ടേ ഇരിക്കും ഓ ബ്ലൂട്ടൂത്ത് ഉണ്ടാവും പിന്നെ നമുക്ക് ചെറുതിന് നാല് ഇഞ്ച് ആവും ഹോം തീയേറ്റർ ഉണ്ടാവും പിന്നെ അതിന്റെ ഒപ്പം അറുപത്തിനാല് ഇഞ്ചിൻ്റെ ഏകദേശം ഒരു എൺപതിനായിരത്തിൻ്റെ മോളിലേക്ക് ആണ് സ്റ്റാർട്ടിംഗ് എന്നുവെച്ചാൽ സ്റ്റാർട്ടിംഗ് വരുന്നത് എൺപതിനായിരം സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഹോം തീയേറ്റർ ഹോം തീയേറ്ററും അവൈലബിൾ ആണ് ബ്ലൂട്ടൂത്ത് കണക്റ്റ് ആണ് ടി വി ഫ്രിഡ്ജ് ഇതുപോലെ നമുക്കൊരു മുപ്പത്തിനാല് ബ്രാൻഡ് ഉണ്ട് സ്റ്റാർട്ടിംഗ് വന്നിട്ട് പതിനഞ്ചിൻ്റെ മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് പതിനഞ്ചിൻ്റെ മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് മാഡം അതിന് ഇപ്പം സാംസങ്ങിൻ്റെ ഉണ്ട് വേൾപൂൾ ഉണ്ട് പിന്നെ എൽ ജി ഉണ്ട് മാഡത്തിന് ഗിഫ്റ്റ് ചെയ്യാനാണോ എങ്ങനെ ആണ് അത് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ ആണോ ആ വാറന്റി പറയുമ്പോൾ ഓരോ കമ്പനി അനുസരിച്ചാണ് ചില കമ്പനികൾ ഇടില്ല രണ്ട് കൊല്ലം കൊടുക്കുന്നുണ്ട് ടി വിക്ക് ആണെങ്കിൽ ആറ് മാസം മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിന് ഇപ്പോൾ നമ്മള സാംസങ്ങിൻ്റെ ഒക്കെ നല്ല മൂവിംഗ് ആണ് ഡബിൾ ഡോർ ഒക്കെ ആണെങ്കിൽ അതിന് ഏകദേശം ഒരു മുപ്പത്തിരണ്ടായിരം മുപ്പത്തിനാലായിരം റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ ഡോർ പിന്നെ വേൾപൂളിൻ്റെ ആണെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് മുതലാണ് സ്റ്റാർട്ടിംഗ് അതിനും ഏകദേശം ഒരു രണ്ട് കൊല്ലത്തെ വാറന്റി ആണ് എല്ലാവരും കൊടുക്കുന്നത് ഇതിനൊക്കെ രണ്ട് കൊല്ലത്തെ വാറന്റി ഉണ്ട് പിന്നെ അവിടെ സർവീസ് ആണെങ്കിലും വീട്ടിൽ വന്ന് സർവീസ് ഉണ്ട് നമ്മൾ ഹോം ഡെലിവറി ആണ് ഇവിടെ നിന്ന് ഒരു ഹോം ഡെലിവറി ഉണ്ട് അവിടെ വന്ന് കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും ഫ്രീ ഹോം ഡെലിവറി സ്റ്റാർട്ടിംഗ് വേൾപൂളിൻ്റെ ആണെങ്കിൽ ഇരുപത്തിയെട്ട് സാംസങ്ങിൻ്റെ ആണെങ്കിൽ മുപ്പത്തിരണ്ടായിരം വേണം

എ സി ആണെങ്കിൽ അത് നമ്മുടെ വോൾട്ടേജ് മാഡം അവിടെ വോൾട്ടേജും കാര്യങ്ങൾ ഒക്കെ ഓക്കെ ആണെങ്കിൽ കുഴപ്പം ഒന്നും ഇല്ലാ പറഞ്ഞാൽ നല്ല സെൻട്രലൈസ്ഡ് എ സിയും ഉണ്ട് സെൻട്രലൈസ്ഡ് എ സി ആണെങ്കിൽ അഞ്ഞൂറ് ആ റേറ്റ് ഉണ്ട് ഫ്രിഡ്ജിൻ്റെ മോഡൽ ഉണ്ട് പിന്നെ പുതിയ ട്രെൻഡിംഗ് മോഡൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ നല്ല ട്രെൻഡിംഗ് ആയിട്ട് ഇപ്പോൾ വേറെ ടൈപ്പുകൾ ഉണ്ട് ഒരു ഒരു ഒരു മുറിയിലേക്ക് വയ്ക്കാൻ ഉള്ളതാണോ മൊത്തം ആയിട്ട് ഹോർഡിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ടൈപ്പ് ആണോ അങ്ങനത്തെ എ സികളും ഉണ്ട് മാഡം ഏത് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അവിടെ വന്ന് സെറ്റിംഗ് കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ചെയ്ത് തരും

ഇല്ല അതൊക്കെ ഇപ്പോഴത്തെ എല്ലാം പുതിയ ഇതല്ലേ മാഡം അപ്പം അത്ര ഇലക്ട്രിസിറ്റി കൺസ്യും ചെയ്യില്ല ഇല്ല കറണ്ട് അത്ര ഏതാണ് ആ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് പറയുമ്പം സാംസങ്ങിന്റെ ഇപ്പം എല്ലാവരും മേടിച്ചുകൊണ്ട് ഇരിക്കുന്നത് നല്ല മൂവിംഗ് കമ്പനി ആണ് അത് രണ്ട് കൊല്ലത്തെ വാറന്റി ഉണ്ട് പിന്നെ നമുക്ക് ഫ്രീ സർവീസ് ആണ് ഒരു ആറ് മാസത്തേക്ക് ഫ്രീ സർവീസ് ഉണ്ടാവും അതിന് എന്ത് കംപ്ലെയിൻറ്റ് വന്നാലും ഒരു ആറ് മാസത്തേക്ക് ഫ്രീ സർവീസ് ഉണ്ട് ക്യാഷ്ബാക്ക് വാറന്റിയും ഉണ്ട് അതിന് അത് ശരി അപ്പം ഓക്കെ മാഡം ശരി അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഇ എം ഐ അടക്കാണെങ്കിൽ ഇ എം ഐ ചെയ്യാം നോ കോസ്റ്റ് ഇ എം ഐ ആണ് എങ്ങനെ റെഡി ക്യാഷ് ആണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട് മാഡം ഇപ്പോൾ നമുക്ക് പത്ത് ശതമാനം ഓഫർ വന്നിട്ടുണ്ട് പിന്നെ കാർഡ് ആണ് തരണങ്കിൽ അതിൽ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ വേറെ ഡിസ്കൗണ്ട് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ലോൺ അങ്ങനെ അതുപോലെ ഒക്കെ ആണ് പറഞ്ഞാൽ അതിനും ഡിസ്കൗണ്ട് ഉണ്ട് മാഡം അപ്പോൾ മാഡം ഏത് കളർ ആണ് ഉപയോഗിക്കുന്നത് ചൂസ് ചെയ്യുന്നത് കളർ മെറൂൺ ഉണ്ട് വൈറ്റ് ഉണ്ട് ക്രീം ഉണ്ട് ഏത് കളർ ആണ് വേണ്ടത്

ഓക്കെ മാഡം അപ്പോൾ എന്നാൽ മാനേജറിൻ്റെ അടുത്തേക്ക് ഇരുന്നോളൂ നമുക്ക് ബാക്കി ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യും